ഞാൻ ഓൺലൈനിൽ ഒരു ബാഗ് ബുക്ക് ചെയ്തിരുന്നു എൻ്റെ മോളുടെ ഒരു കൂട്ടുകാരി വഴിന് ഈ ഇത് ബാഗ് ബുക്ക് ചെയ്തത് അവൾ പറഞ്ഞു നല്ല സാനോണ് നമ്മൾക്ക് കാണിക്കുമ്പം അവർ കാണിക്കുമ്പം ഫോട്ടൊക്കെ ഇട്ട് തരുവല്ലോ ബാഗിൻ്റെ അപ്പോൾ ഫോട്ടോ കണ്ട് കഴിഞ്ഞപ്പം നാല് ബാഗ് നല്ല ഭംഗിയുള്ള നാല് ബാഗ് അപ്പം എൻ്റെ മോള് പറഞ്ഞു അമ്മെ ഒരു ബാ ഞാൻ പറഞ്ഞു ഒരു ബാഗ് മേടിച്ചാൽ പോരെ മോനെന്തിനാണ് നാല് ബാഗ് അമ്മേ ഇത് നാലെണ്ണം കിട്ടൂല്ലേ നല്ല രസോണ്ടമ്മേ നല്ല കളറ്ന്നക്കെ പറഞ്ഞോണ്ട് ബാഗ് ഓൺലൈനിൽ പൈസ അടച്ചിട്ടാണ് നമുക്കീ സാധനം വരണത് കവറ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ബാഗിൽ ഒരു സിബ്ബ് പോലുമില്ലാത്ത നാല് ബാഗ് ഒരു പേഴ്സ് രണ്ട് പേഴ്സ്ണ്ട് പേഴ്സ്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഈ റക്സിൻ്റെ ഷീറ്റ് രണ്ടാക്കി മടക്കീട്ട് ഒരു പ്രസ് ബട്ടൺ വക്യ അങ്ങനത്തെ രണ്ട് പേഴ്സ് അതിനൊരു ചങ്ങല പോലത്തൊരു വള്ളീം വച്ചും കൊണ്ടുള്ള ബാഗ് നമ്മൾ അറിഞ്ഞവരും ആരും അങ്ങനെ ചെയ്യരുത് അപ്പോൾ ബാഗ്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഓൺലൈനിൽ നമ്മൾ വിശ്വസിച്ച് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ഒരു ഡ്രസ്സ് പോലും നമുക്കത് വക്കാൻ പറ്റില്ല കാരണം അതിൽ സിബ്ബില്ല ആ ബാഗിന് മെയിൻ ബാഗിന് സിബ്ബില്ല പക്ഷേ അവർ പടമിട്ടക്കെ തരുമ്പോൾ നല്ല സിബ്ബ് പോലെക്കെ തോന്നി നല്ല ബാഗായിട്ട് നമുക്ക് തോന്നും അപ്പം ഇങ്ങനെ പറ്റിക്കലുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിലിടുന്നുണ്ട് എല്ലാവരും പറ്റിക്കുന്നല്ല ഞാൻ പറഞ്ഞത് പല ഓൺലൈൻലും കാർ ഇങ്ങനെ പറ്റിച്ച് കാശ് നേടുന്നുണ്ട്